ഹലോ ആ കോൺട്രാക്ടർ അല്ലേപ്പാ അതെന്നാന്ന് വച്ചാൽ എനിക്കൊരു വേറെ ഒരാൾ നമ്പറ് തന്നിട്ട് നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു അതായത് എൻ്റെ വീടിൻ്റെ മേലത്തെ നില കുറച്ച് കൂട്ടണം എന്നുണ്ട് അതായത് വീട് മേലേയും താഴേയും ഉള്ള വീടാണ് അപ്പം റൂമ് സൗകര്യം കുറവാണ് അപ്പം മേലെ ഒരു രണ്ട് റൂമും എല്ലാ ഹൊളെല്ലാം ആക്കിയിട്ട് ഒന്ന് കൂട്ടണം എന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ നമ്പറ് തന്നു

അത് മേലെ ഇപ്പം ആയിരം സ്കൊയർ ഫീറ്റിൻ്റെ വീട് അപ്പം മേലെയാകുമ്പോൾ കുറച്ച് ആയിരത്തഞ്ഞൂറ് വരും തോന്നുന്നു അപ്പോൾ അതിൽ കുറച്ച് ഒരു എണ്ണൂറ് എല്ലാം ആക്കിയിട്ട് അത് ഹോളാണ് ഉണ്ടായിന് മേലെ അപ്പോൾ അത് റൂമാക്കിയിട്ട് നോക്കുമ്പോൾ എങ്ങനെ ആണെന്നറിയില്ല അപ്പോൾ അപ്പോളത് കോൺട്രാക്റ്ററോട് ചോദിച്ചാൽ പറയും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് എല്ലാം വരും എന്നെല്ലാമറിയാൻ വേണ്ടിയിട്ട് വിളിച്ചത് ഏകദേശം നമുക്ക് ഓരോ കല്ലിൻ്റെ പണിക്കാർ മറ്റേ മരത്തിൻ്റെ പണിക്കാർ അങ്ങനെ ഓരോന്നും വേണ്ടി വരൂലേ അപ്പോൾ അത് നിങ്ങളോട് ചോദിച്ചാൽ അറിയും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിന് അവർ പറഞ്ഞത് ആ അതെ അതെ അങ്ങനെ പറഞ്ഞാൽ മതി അതെ അതെ അത് അതു പിന്നെ കല്ലിൻ്റെ ആ ആ അത് കല്ലിൻ്റേതും വാതിൽ എല്ലാം മരത്തിൻ്റേത് അത് എല്ലാം എല്ലാവരോടും ചോദിച്ചോളൂ പിന്നെ ആ അവരോട് എല്ലാം ചോദിച്ചിട്ട് ശരിക്കുള്ള മറുപടി ആണെങ്കിൽ അത് നമുക്ക് ഒരു തുക കാണുകയും ചെയ്യണ്ടേ പിന്നെ ആൾക്കാരെല്ലാം വയ്ക്കാൻ വരുമ്പോഴേക്ക് സൗകര്യം കുറച്ച് കുറവാണ്

ആ ആ അതെ ആ ആ അതു കൊണ്ട് മരത്തിൻ്റെയോ പിന്നെ കല്ലിൻ്റേത് ഏത് സിമൻ്റ് പൂഴി എല്ലാത്തിനും കൂടെ ചോദിച്ചോളു എന്നിട്ട് ഒന്ന് എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഒരു എത്ര തുകയാവുന്നെ എന്നും നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ ശരി എന്നാൽ ആ ശരി ആ ആ